ഇപ്പോള് നമ്മളെ ചോദ്യ പ്രകാരം കായിക വിനോദം നമ്മളെ പിരിമുറക്കത്തിലും മാറ്റാനും പിന്നെ ആസ്വദിക്കാനും നമുക്കെത്രത്തോളം കഴിയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് കാരണം നമ്മളെ മനസികമായിട്ടും നമുക്ക് ശാരീരികമായിട്ടും നമ്മള് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തില് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കാണെങ്കില് നമുക്ക് ജോലി സംബന്ധമായ ഒരുപാട് ടെൻഷൻസുണ്ടാവും ജീവിതത്തില് ഒരുപാട് ടെൻഷൻസുണ്ടാകും ഇതൊക്കെ നമുക്ക് പോയി ഒരരമണിക്കൂർ ഫുട്ബോള് കളിച്ചുകഴിഞ്ഞാല് ഒക്കെ നമ്മള് മറക്കും ആ ഒരു സമയത്ത് നമ്മള് കണ്ടെത്തുന്നൊരു ഒരു സന്തോഷവും ആ ഒരു സമയത്തേക്കെങ്കിലും നമുക്ക് എന്തു ചെയ്യും അത് മറക്കാനൊക്കെ നമ്മള്ക്ക് കഴിയുന്നുണ്ട് അപ്പോള് എല്ലാവര്ക്കും അവരുടേതായ താല്പര്യമുള്ള ഒരു വിനോദത്തില് പങ്കെടുക്കാണെങ്കില് തങ്ങൾക്കുണ്ടാകുന്ന പല കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരാം ഈ വിനോദങ്ങള് നമ്മളെ ശാരീരികമായിട്ട് മാത്രമല്ല എന്താ മുന്നിലെത്തിക്കുന്നത് മാനസികമായിട്ടും നമുക്ക് മുന്നിലെത്തിക്കണ്ണ്ട് കാരണം നമുക്ക് നമ്മളെ ഉള്ളില് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മള് ചെയ്യുമ്പോ അത് നമ്മളെ ശരീരത്തില് വരുന്ന മാറ്റങ്ങളെന്നാല് ഒരുപാടാണ് നമ്മളെ സന്തോഷം നമുക്ക് നമ്മക്കൊരു സന്തോഷമുണ്ടാകുമ്പോ നമ്മുടെ ശരീരത്തില് ഒരുപാട് ഹോർമോൺസും ഒരുപാട് സാധനങ്ങള് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ നമ്മടെ ചിന്താഗതീനെ അല്ലെങ്കില് നമ്മുടെ സന്തോഷത്തിനെ നമ്മുടെ പിരിമുറക്കത്തിനെയൊക്കെ നമുക്ക് മാറ്റാന് ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടെന്നെ കായിക വിനോദങ്ങള് ഓരോ വ്യക്തീൻ്റെ ജീവിതത്തിലും എന്തു ചെയ്യണം കൊണ്ടു വരണം ഇന്നത്തെ കാലത്തെ തലമുറയില് ഇവര് എപ്പോഴും ഒരു ഫോണിന്റെ അഡിക്റ്റായിട്ടുള്ളൊരു ജീവിതാണ് കുട്ടികൾക്കിടയിലുള്ളത് കാരണം പണ്ടു കാലത്തുണ്ടായിരുന്ന നമ്മുടെ കുട്ടികാലത്തൊക്കെ നമുക്ക് ഒരുപാട് കായിക ഓരോ സീസണൽ വിനോദങ്ങളുണ്ടായിരുന്നത് പമ്പരം കളിക്കുക കുട്ടീം കോലും കളിക്കുക അങ്ങനെ തുടങ്ങി ഒരുപാട് വിനോദങ്ങള് നമ്മളെ കുട്ടിക്കാലത്ത് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കിടയില് നഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടിക്കാല വിനോദങ്ങളുണ്ട് ചെറിയ ചെറിയ പിന്നെ ഏറ് പന്ത് കളി അങ്ങനത്തൊരുപാട് കളികൾ ഇന്നത്തെ കുട്ടികൾക്ക് മിസ്സാവുന്നുണ്ട് ഇതൊക്കെ അവരെ ഭാവി ജീവിതത്തില് അത് ഒരുപാടായിട്ട് ബാധിക്കുന്നെന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാം കാരണം നമ്മള് ചളിയില് ഇറങ്ങി അവിടെ കളിക്കുന്ന ഞാനൊക്കെ എത്രയോ കാലങ്ങളായിട്ട് പാടത്തു ചളിയില് വെരണ്ട് കളിച്ച ആൾക്കാരാണ് മ്മക്കൊക്ക ഉണ്ടാകുന്ന ഒരു പ്രതിരോധശേഷിയൊന്നും ഇന്നത്തെ തലമുറയ്ക്കുണ്ടാകുമെന്നെന്നെ എനിക്ക് തോന്നണില്ല കാരണം അവര് മണ്ണിലും പൊടിയിലും ചെളിയിലുമൊന്നും തട്ടാതെ ജീവിച്ച് എന്താണ് വിനോദം അവർക്കുള്ള വിനോദം എന്ന് പറഞ്ഞാല് ഈ ഫോണിലുള്ള പബ്ജി കളിക്കുക ഫ്രീ ഫയര് കളിക്കുക അത്രത്തോളമുള്ളൊരു ഒതുങ്ങിക്കൂടിയ ചിന്താഗതിയില് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോള് ഞാനെന്തെച്ചഴിഞ്ഞാല് വിനോദം പരിപാടിയില് നമ്മള് ഏർപ്പെട്ടുകഴിഞ്ഞാല് നമ്മളെ നമുക്ക് ശാരീരികമായിട്ടും മനസികമായിട്ടും ഉണ്ടാകുന്ന പിരിമുറക്കങ്ങളെ ഇല്ലാതാക്കാനും നമ്മുടെ ടെൻഷൻസും നമ്മളെ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാനും നമുക്കത് ആസ്വദിക്കാനുമൊക്കെ നമുക്ക് ഒരുപാട് സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്